ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിലുള്ളൊരവധി ദിവസമെന്നു പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഉള്ള ഇൻറ്റിപ്പെന്റൻസ് ഡേയാണ് സ്വാതന്ത്ര്യദിനം ഇന്ത്യേന് ബ്രിട്ടീഷിന്റെ ആദിപത്യത്തു നിന്നു മാറി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അതും പിന്നീട് ജനുവരി ഇരുപത്തിയാറിനുള്ള ഇരുപത്തിയാറിലുള്ള റിപ്പബ്ലിക്ക് ഡേ ഇന്ത്യയുടെ ഭരണ ഘടന നിലവിൽ വന്നത് ജനുവരി മാസം ഇരുപത്തിയാറിനാണ് അപ്പം അന്നു തൊട്ട് നമ്മൾ വളരെ കർശനമായിട്ടീയൊരു ദിവസം രണ്ടു ദിവസം നമ്മളെ ആ അവധിയായിട്ടാഘോഷിക്കുന്നു പിന്നീടും വരുന്നുണ്ട് ക്രിസ്മസിരുപ ക്രിസ്തുമസിനു നമ്മൾ ലോകത്തിലും ആ ആകാനും ക്രിസ്മസാഘോഷിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ പറയാണെങ്കിൽ വിഷു അതിനങ്ങനെ ദിവസങ്ങളൊന്നുമില്ല പക്ഷേ എന്നാലും വിഷുവിനവധി തരാറുണ്ട് പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉത്സവങ്ങളാണ് ഈ മ ഇന്ത്യയിലല്ല മലയാളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണമെന്നു പറയുന്നത് ഓണത്തിന് പത്തു ദിവസത്തെ കാത്തിരിപ്പും സദ്യയുമൊക്കെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതു മാത്രമല്ല ഇന്ത്യയുടെ കാര്യം പറയാണെങ്കിൽ ഹോളി നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ആഘോഷിക്കുന്നൊരു കാര്യമാണ് ഹൽദി ആ പിന്നെ ഹോളി ആഘോഷിക്കുന്നുണ്ട് പിന്നെ ദീപാവലി വെളിച്ചം കത്തിച്ച് വെക്കുന്നത് അതൊക്കെ വളരെ പ്രാ പ്രാധാന്യപ്പെട്ട ഒരു വിഭവ വിഷയം തന്നെയാണ് ഇന്ത്യ ഇന്ത്യക്ക് പിന്നെയും ഒരുപാട് പൂജകളും ഒരുപാട് ദിവസങ്ങളുമൊക്കെ പുറത്ത് ആഘോഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഇതിൽ കേരളത്തിലേറ്റവും വലിയ ആഘോഷം ഉത്സവം അത് ഓണം തന്നെയാണ് അതിന്റത്രയും വേറെ ഒരു വേറൊരു ഉത്സവമില്ല